ആള്കൾ പട്ടണങ്ങളിൽ ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്നത് കൊണ്ട് യുവതലമുറ അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തി പരമായിട്ട് ഇതുവരെ അങ്ങനെ തോന്നീട്ടില്ല ഇനി അങ്ങനൊരു സിറ്റ്വേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെയും ചെറിയ ചെറിയ വില്ലജെസ്സിൽ നിന്നും പട്ടണങ്ങൾലേക്ക് താമസം മാറുന്ന ആൾക്കാരുടേം തമ്മിലുള്ള സംസ്കാരത്തിൻ്റെ വ്യത്യാസം തന്നെയായിരിക്കാം നമ്മൾ പട്ടണങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടേം സംസ്കാരങ്ങളിൽ നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തമായ രീതികളും സംസ്കാരങ്ങളും പരിഷ്ക്കാരങ്ങളും എല്ലാമായിരിക്കും ചെറിയ ചെറിയ വില്ലജ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ആള്കളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക ഇതിപ്പം ഉദാഹരണം പറയാച്ചാൽ നമ്മളുടെ രീതി അതായത് പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ രീതികൾ ഭക്ഷണ ശൈലികൾ പഠന ശൈലികൾ കലാമ കലാപരമായി ബെന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഷ്ക്കാര രീതികൾ എല്ലാം എപ്പോഴും വ്യത്യസ്തമായിരിക്കും ഈ പട്ടങ്ങങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുടേത് ഇവരായി ഈ പട്ടണങ്ങളിൽ നിന്നും അല്ല ഈ ചെറിയ ചെറിയ വില്ലേജ്കളിൽ നിന്നും വരുന്ന പട്ടണങ്ങളിൽ ത വന്ന് തമസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലായാലും എല്ലാ ശൈലികളിലായാലും ഒരു ചെറിയൊരു വ്യത്യാസം എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അത് പലപ്പോഴും പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ശൈലി ആയിട്ടും എല്ലാമായിട്ടും കൂടി ഒത്തുപോവാൻ പലപ്പോഴും ഈ വന്ന് താമസിക്കുന്ന ആൾക്കാര്ക്ക് പറ്റീന്ന് വരുന്നില്ല നമ്മൾ ഈ പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു നിലവാരം കുറച്ച് കൂട്തലാരിക്കാം അത് കൊണ്ട് തന്നെ നമ്മൾ യുവതലമുറകൾ അവരുടെ അനുയോജ്യമായ അവർക്കനുയോജ്യമായ പാട്ട്നേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്